ഇപ്പോൾ പണ്ടുള്ളത് പോലെ ഒന്നും അല്ല പണ്ട് കാലങ്ങളിൽ നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വയസ് വാരെ ജീവിച്ചിരിന്നുള്ളു പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് എഴുപതും എമ്പതുമല്ലെങ്കിൽ അതിൻ്റെ മുകളിലും പ്രായമായവരൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എഴുപത് വയസുള്ള ഒരാള് ചായ പീടികയിൽ ഭയങ്കര സന്തോഷ്ടത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നത് കാണാം പക്ഷെ അത്രേ വയസുള്ള ആള് തന്നെ വീട്ടില് വെറെയൊരാള് കടപ്പിലായത് ഉണ്ടാകും ചിലപ്പം എവിടെ എങ്കിലും വീണതോ അലെങ്കില്ല് തലകറക്കൊക്കെയായിട്ട് കിടപ്പിലായതാവും പിന്നെ പശത്തൊരു കിടപ്പായ ഒരവസ്ഥ നീണ്ട് നിൽക്കുന്നത് പോലായിരിക്കും പിന്നെ മരണം വരെയങ്ങ് ആ കിടക്കയിൽ തന്നെ കിടക്കും വീട്ടുകാര് എല്ലാത്തിനും സഹായിക്കും അയാളുടെ പെണ്ണങ്ങള് അയാളെ എല്ലാത്തിനും സം സഹായിക്കും കുളിക്കാനും ഭഷണത്തിനും ഒക്കെ സഹായിക്കും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും പക്ഷേ ആരും ഇല്ലാത്തവരുണ്ടാവും അവർക്ക് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നാട്ടുകാര് സഹായിക്കുന്നവരുണ്ട് പിന്നെ പാലിയേറ്റിവ് കേയറ് എന്ന് ആൾക്കാര് വന്നിട്ട് സഹായിക്കും അങ്ങനെ ഉണ്ട് പിന്നേ എന്നാലും ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പഴും ഭയങ്കര ആരോഗ്യത്തോടു കൂടി രാവിലെ ചായ പീടികയിൽ വന്ന് സംസാരിച്ച് നാട്ടിലെല്ലാവരെയും നോക്കിനിന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ ആയ വരെ ഇപ്പം സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് ഇല്ലാത്തവരെ സംരഷിക്കാനും ആൾക്കാരുണ്ട് കാരണം സമുഹത്തിലെ പല പദ്ധതികളും അവർക്ക് ഭയങ്കര സഹായകമാണ് ജീവിതം ജീവിച്ച് തീർക്കുക എന്നുള്ളത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ചിലയാൾകാർക്ക് കുറച്ച് കിടപ്പിലായതിൽ പിന്നെ ആൾക്ക്പിന്നെ പെട്ടെന്ന് മരിക്കണം അങ്ങനെയൊക്കെ ആരും നോക്കാൻ ഇല്ല അങ്ങനെ ഒക്കെയുണ്ട് പലർക്കും ഉള്ള പ്രശ്നമെന്ന് വെച്ചാല് അവരുടെ തലച്ചോറിനുള്ള പ്രശ്നം പിന്നെ വീണിട്ട് കാലിന് സുഖമില്ലാതെ കിടക്കുക അങ്ങനെ കിടന്ന് കിടന്ന് പിന്നെ മരണം വരെ കിടക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാറുണ്ട്